ഹലോ ഹലോ സുബാഷേട്ടനല്ലേ ജിം ട്രെയിനറ് ഞാൻ കെവിനാണെ എൻ്റെ പേര് കെവിൻ എന്നാണേ ഞാൻ ഇവിടെ കുട്ടിക്കാനത്തുനിന്ന് വിളിക്കുവാ കേട്ടോ ചേട്ടാ ഞാൻ ഇപ്പം ഞാൻ പ്ലസ് ടു കഴിഞ്ഞു രണ്ടുവർഷം ഗ്യാപ് ഒക്കെ ആയതുകൊണ്ട് ഞാനിപ്പോൾ പൊലീസിലേക്ക് എസ് ഐ ടെസ്റ്റിനുവേണ്ടി ഞാൻ നിക്കുവായിരുന്നെ അപ്പം അതിൽ പോകാനായിട്ട് എനിക്ക് അപ്പം ഇനിയിപ്പം വരുന്ന ദിവസങ്ങളിൽ ഒക്കെ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ എക്സയിസ് കാര്യങ്ങളൊക്കെ ഒരുപാട് വർക്ഔട്ട് ഒക്കെ ചെയ്യണം എൻ്റെ ബോഡി ഫിറ്റ് ആക്കണം എന്നാൽ മാത്രമേ എനിക്ക് പോവാൻ പറ്റത്തുള്ളൂ എനിക്കത് എലിജിബിൾ ആകത്തുള്ളൂ അതുകൊണ്ട് എനിക്ക് ഞാനിങ്ങനെ എൻ്റെ ഫ്രണ്ട് ആണ് എനിക്ക് സജസ്റ്റ് ചെയ്തു തന്നത് ആ മനു മനുവിനെ അറിയുമോ മനു എന്നു പറഞ്ഞ കുട്ടിക്കാനത്തുള്ള ഓക്കേ അവനാണ് എനിക്ക് സജെസ്റ്റ് ചെയ്തുതന്നത് അപ്പോൾ ചേട്ടാ എനിക്ക് എനിക്കിപ്പം ഒരു എഴുപത്തിയഞ്ച് കിലോയുണ്ട് എനിക്ക് അത്യാവശ്യം ഒരു ഹൈയിറ്റ് എനിക്ക് വൺ വൺ സെവൻറ്റി ആണ് സെൻറ്റിമീറ്റർ ഹൈറ്റ് വരുന്നത് ആ സെവൻറ്റി ഫൈ കിലോയുണ്ട് ആ ഫിഫ്റ്റി ഐയ്റ്റ് ഒരു സിസ്റ്റിയോളം വരണം എനിക്ക് അപ്പോൾ എനിക്ക് അത്യാവശ്യം കുടവണ്ടിയുണ്ട് പിന്നെ അത്യാവശ്യം ഫാറ്റ് ഉണ്ട് എൻ്റെ ശരീരത്തിൽ അപ്പോൾ എനിക്ക് എങ്ങനെയെങ്കിലും അതൊന്ന് ഫാറ്റ് ബേൺ ചെയ്യണമായിരുന്നു അപ്പോൾ അതിന് എനിക്ക് അവിടെ നമ്മുടെ അവിടെത്തന്നെ വരാതെ നമുക്ക് വീട്ടിലിരുന്ന് തന്നെ ചെയ്യാൻ പറ്റുമോ ചേട്ടായിയെ അസിസ്റ്റ് ചെയ്തുകൊണ്ട് ആ അതെ വൺ മന്ത് ഇല്ലെങ്കിൽ ടു മന്ത് മാക്സിമം ടു മന്ത് മാക്സിമം ആ അതെ അതെ

ആ എനിക്ക് ആ ഒരു ഫീയുടെ സ്ട്രെച്ചറുകൂടെ അറിഞ്ഞായിരുന്നെങ്കിൽ എനിക്ക് അതനുസരിച്ച് ഒരു ഡിസിഷനെടുക്കാമായിരുന്നു കാരണം എനിക്കിപ്പം അവിടെ വരാൻ തന്നെ

ഓക്കേ അപ്പം രണ്ടുമാസം ആവുമ്പഴുത്തേന് ആയിരം ആയിര അഞ്ഞൂറുരൂപ പിന്നെ അഞ്ഞൂറ് ഡേയ്സ് വരും ഓക്കേ എനിക്കിപ്പം അവിടവന്ന് പോകാനാണെങ്കിൽ എനിക്ക് ഏകദേശം ഏഹ് ഏഹ് വണ്ടിക്കൂലി തന്നെ അല്ലെങ്കിൽ എണ്ണയുടെ കാശ് തന്നെ എങ്ങനെ പോയാലും പത്ത് ഇരുന്നൂറ് മുന്നൂറോളം വരും അപ്പോൾ അത് ആയിരത്തിമുന്നൂറോളം രൂപയോളം എല്ലാം വവരും ഇപ്പോൾ എല്ലാം ഓൺലൈൻ പഠിപ്പിക്കുകയാണെങ്കിലോ ആ ഓക്കേ ആ എനിക്ക് അപ്പോൾ ഒരു രണ്ടുമാസംകൊണ്ട് എങ്ങനെ പോയാലും ഏകദേശം സെറ്റ് ആവാൻ പറ്റുമല്ലേ അ ഓക്കേ ഓക്കേ അങ്ങനെയാണെങ്കിൽ ചേട്ടാ ഞാനേ അടുത്ത തിങ്കളാഴ്ച തൊട്ട് ഞാൻ വന്ന് ജോയിൻ ചെയ്യട്ടെ ഒന്ന് എന്നെ അസിസ്റ്റ് ചെയ്യാമോ ആഹ് ഓക്കേ ഓക്കേ അപ്പോൾ ഞാൻ എന്നാൽ അടുത്ത തിങ്കളാഴ്ച തൊട്ട് ഞാൻ വരാമെ ഓക്കേ നമുക്ക് ഏതായാലും നേരിട്ട് കാണാം ശരി ശരി ഓക്കേ ഓ